അപ്പോൾ ഞാൻ കൂടുതലായിട്ടും എന്താ പറയുക നമുക്ക് ഈ പ്രത്യേകിച്ച് രഹസ്യ രഹസ്യ ചേരുവകളും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേ പോലെ തന്നെയാണ് നമ്മുടെ ഇത് ഉണ്ടാക്കുക എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫുഡ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും സാധാരണ പോലെ തന്നെ ഉണ്ടാക്കിയാൽ മാത്രം മതി കാരണം നമുക്ക് പ്രത്യേകിച്ച് ചേരുവകൾ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കണ്ട കാര്യമില്ല നമ്മൾ സാധാരണ എങ്ങനെയാണൊ ഒരു ഇപ്പം സാമ്പാർ വെക്കുന്നത് നമ്മളതിന് മെയ്നായിട്ടുള്ള സാമ്പാർ കാ കായപ്പൊടി അങ്ങനത്തെ കാര്യങ്ങൾ സാമ്പാർ പൊടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഇത് ഇത് തന്നെ കിട്ടും വേണമെങ്കിൽ പറയാം പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ മസാല അങ്ങനത്തെ കാര്യങ്ങളക്കെയാണ് കൂടുതലായിട്ടും ചേർക്കുക അപ്പോൾ പല രീതിയിലുള്ള ചിക്കൻ മസാല കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കടകളിലൊക്കെ ലഭ്യമാണ് ഈസ്റ്റേൺ അങ്ങനത്തെ പല രീതിയിലുള്ള ച് മസാലകളൊക്കെ ലഭ്യമാണ് അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ചിലതിൽ ടേസ്റ്റൊക്കെ മാറും അപ്പോൾ അതൊക്കെ മെയ്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം നമുക്ക് കിട്ടും